മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിവാഹം എന്നത് വിവാഹം പല രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം പല രീതിയിലാണ് നടത്തപ്പെടുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ അമൂല്യമാക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്കും കൂടി ഒന്നിച്ച് ചേർന്നുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് പല പല രീതിയിലുള്ള വിവാഹങ്ങളിന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇവരുടെ വിവിധ രീതിയിലുള്ള വിവാഹങ്ങളാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിവാഹം പല രീതിയിലും ഇന്ന് ആഘോഷങ്ങളായി മാറുന്നുണ്ട് അതേ സമയം തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതിലുപരി ഇന്ന് ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാട്രിമോണികൾ വിവാഹ ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്